ഇപ്പോൾ ഇന്ത്യയിലെതന്നെ അത്യാവശ്യം എന്താ സൗകര്യങ്ങളും ഹോസ്പിറ്റലാണെങ്കിലും പിന്നെ ആരോഗ്യ മേഖലയിൽത്തന്നെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നിട്ടും എന്താ പറയുക രോഗികൾക്കൊന്നും നല്ലൊരു എപ്പോഴും നല്ലൊരനുഭവം ആവില്ല നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും കിട്ടാറുള്ളത് സൗകര്യങ്ങളൊക്കെ കൂടുന്തോറും അവർക്ക് രോഗികൾക്ക് നല്ല അനുഭവങ്ങളൊന്നും അല്ല കിട്ടണത് ഏറെക്കുറേ അത്യാവശ്യം നല്ല ഹോസ്പിറ്റലിലും സൗകര്യങ്ങളൊക്കെയുണ്ട് എന്നാൽ ആ സൗകര്യങ്ങളൊന്നും രോഗികൾക്ക് എത്തണില്ല നല്ല രീതിയില് യൂസ് ചെയ്യാനും പറ്റണില്ല പിന്നെ പിന്നെന്ന് വെച്ചാല് വേറെയെന്താന്ന് വെച്ചാല് ഇപ്പോൾ രോഗികളുടെ അനുഭവം എന്ന് പറയണത് ഇപ്പോൾ നമ്മൾക്ക് ദിവസം ന്യൂസിലിങ്ങന കാണാൻ പറ്റും ഏറെക്കുറേ ഡെയ്ലി ഒന്നുമില്ലെങ്കിൽ ഡോക്ടേർസിന് എതിരെ എന്തെങ്കിലും പേഷ്യൻസ് ആക്രമിച്ചതായിട്ട് രണ്ടു മൂന്ന് കേസുകള് കേരളത്തിൽ തന്നെ നടന്നിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് ഒരു ഡോക്ടർ മരിക്കുകയും ചെയ്തിരുന്നു അതേമാതിരിത്തന്നെ അതൊക്കെ ആരോഗ്യ ആരോഗ്യ മേഖയില് നിയമ ചട്ടങ്ങളുടെ അപര്യാപ്തത കാരണം തന്നെയാണ് പിന്നെയെന്ന് പറഞ്ഞാല് ഇപ്പോൾ രോഗികളുടെ അനുഭവമെന്ന് പറയുന്ന നല്ല അനുഭവങ്ങള് ഉണ്ടാവാറുണ്ട് അതെല്ലാ ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് കിട്ടാറില്ല പിന്നെ വേറെയെന്ന് വെച്ചാല് ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കില് ഇപ്പോൾ എന്താ പറയുക ഒരു സ്ത്രീയെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലില് വന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് പോയ ശേഷം അവർക്ക് വയറുവേദനയായിരുന്നു എന്താണ് കാര്യം അറിയണില്ല പിന്നെ സ്കാൻ ചെയ്ത് നോക്കിയ ശേഷമാണ് അവരുടെ വയറ്റില് ഒരു സിസ്സറ് ഉണ്ട് എന്ന് അറിഞ്ഞത് അപ്പോൾ ഇത് അന്ന് ചെയ്ത ഓപ്പറേഷൻ മുൻപ് ചെയ്ത ഓപ്പറേഷനില് ഇവര് ഈ ഡോക്ടേർസും സിസ്സറും കൂടിയും ഉൾപ്പെടുത്തിയിട്ടാണ് വയറ് തുന്നികെട്ടിയത് അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഒരു നല്ല അനുഭവമല്ല അവർക്ക് കിട്ടണത് മോശമായിട്ടുള്ള അനുഭവമാണ് കിട്ടണത് അപ്പോൾ അത്രയും വേദന അവര് സഹിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ എന്താ പറയുക നല്ല രോഗികൾക്കാണെങ്കിലും എല്ലായിടത്ത് നിന്നും നല്ലൊര് അനുഭവമല്ല കിട്ടണത് പിന്നെ ഫെസിലിറ്റീസ് എല്ലാ ഹോസ്പിറ്റലിലും നല്ല രീതിയില് ഇപ്പോൾ ഫെസിലിറ്റീസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഉണ്ട് ഏറെക്കുറേ എല്ലായിടത്തും ഉണ്ട് പക്ഷെ അതൊന്നും നല്ല രീതിയില് അതേപോലെത്തന്നെ നല്ല രീതിയില് രോഗികളുടെ ഇടയിലേക്ക് എത്തണില്ല പിന്നെയെന്ന് പറഞ്ഞാല് എന്താ പറയുക ഓർഗൺ ഡൊണേഷൻസൊക്കെ അതിന്ന് അവര് അതിൻ്റെ സർജറീസൊക്കെ നടക്കണണ്ട് ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കില് എന്താ പറയുക അത് ബിസിനസ്സായിട്ട് കാണുന്നുണ്ട് അവര് ആ അത് മുതലെടുക്കാൻ അപ്പോൾ ഓർഗൺ ഡൊണേഷൻ ചെയ്തിട്ട് അവർക്ക് ഓർഗൺ വേണ്ട ആൾക്ക് സർജറി ചെയ്തിട്ട് അത് അവിടെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിന് ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനേയും കേസുകളൊക്കെ നമ്മളെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിലും പല രീതിയില് അഴിമതികളാണ് നടക്കണത് സൗകര്യം കൂടുന്തോറും ഫെസിലിറ്റീസ് കൂടുന്തോറും ആ ഫെസിലിറ്റീസ് രോഗികൾക്കെത്താതെ അവിടെ അഴിമതികളാണ് കൂടുതലായിട്ട് നടക്കണത്